ഇപ്പോൾ മലയാള ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മൾക്ക് മാത്രമാണ് അതായത് മലയാളികൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഭാഷയാണ് വേറെ അതായത് വേറെ ഇപ്പോൾ ലക്ഷദ്വീപിലും മലയാളം ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ കറക്ട് മലയാളം അല്ല അവരുടേതായിട്ടുള്ള ശൈലിയിലാണ് ലക്ഷദ്വീപിൽ ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ വിവർത്തനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ മലയാളം നമുക്ക് അവർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല അപ്പം നമ്മൾ ഇംഗ്ലീഷും മലയാളവും കൂടെ കൂട്ടിയിട്ടാണ് ഏതൊരു മലയാളി ആണെങ്കിലും ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ മലയാളം സംസാരിക്കുന്നത് പോലെ തന്നെ ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒന്നും പറ്റില്ല അപ്പം അവർ കൂടുതലായിട്ടും വിവർത്തനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തർജ്ജിമ ചെയ്ത ഒക്കെ കൊടുക്കണമെങ്കിൽ കുറച്ച് പാടായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമുക്കിപ്പം ഒരു ഇംഗ്ലീഷുകാർ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും സ്ഥലം ചോദിച്ച് ഇപ്പോൾ തുഷാരഗിരി എവിടെയാണ് എന്ന് ചോദിച്ചു നമുക്ക് ചിലപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കും അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ മലയാളം കയറി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് അവർക്ക് ചിലപ്പോൾ മനസ്സിലാവാനും മനസ്സിലാവാതിരിക്കാനും സാധ്യതയുണ്ട് ചിലവർക്ക് അത് മനസ്സിലാവും ചിലവർക്ക് മനസ്സിലാകില്ല അപ്പോൾ നമ്മൾ കറക്ട് ആയിട്ടുള്ള ഫ്ലൂവൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ നമ്മൾ വിവർത്തനം ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും